എനിക്ക് കൂടുതലും സന്ദർശിക്കാൻ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ ഫോറസ്റ്റ് ഏരിയ പോലുള്ള നല്ല അന്ത അന്തരീക്ഷത്തിലെ നല്ല ജീ ജീവജാലങ്ങളുടെയൊക്കെ സൗണ്ട് മാത്രമെ ഫോറസ്റ്റ് ഏരിയകളിലുണ്ടാവുകയുള്ളൂ അതുപോലെ നല്ല പച്ചപ്പും അതുപോലെ എന്തോ എനിക്ക് ആൾക്കാര് കൂടുതലുള്ള സ്ഥലത്തിനേക്കാളും കൂടുതലിഷ്ടം പോകാനായിട്ട് ഫോറസ്റ്റ് ഏരിയ അതുപോലെ മൃഗങ്ങളെ പോയി കാണുക അങ്ങനെയുള്ള ഏരിയാണ് എനിക്ക് കൂടുതലിഷ്ടം ഈ അതുപോലെ ഇപ്പോൾ പിന്നെ ഈ ചുരങ്ങളിലൊക്കെ ഈ മഞ്ഞൊക്കെ മൂടി കോടയൊക്കെ മൂടി കിടക്കുന്നൊരു സ്ഥലങ്ങള് അതുപോലുള്ള സ്ഥലങ്ങളിലാണ് എനിക്ക് സന്ദർശിക്കാൻ പോവാനിഷ്ടം അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാല് എനിക്കിപ്പം ആൾക്കാര് കൂടിയ സ്ഥലങ്ങളിപ്പം അങ്ങോട്ടുമിങ്ങോട്ടും സംസാരം മാത്രമെ ഉണ്ടാവുകയുള്ളു അപ്പം നമുക്ക് ഒരാസ്വദിക്കൽ ചിലർക്ക് ആൾക്കാരുള്ള ഈ പാർക്ക് പോലുള്ള സ്ഥലങ്ങളിലായിരിക്കും കൂടുതൽ ആസ്വദിക്കാൻ കഴിയുക എനിക്ക് എന്നാല് ഫോറസ്റ്റ് ഏരിയിലോ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഫാമിലിയായിട്ടോ പോയി നല്ല രീതിയിൽ നമ്മുടെ ടൈമ് സ്പെൻഡ് ചെയ്യാനാണ് എനിക്ക് കൂടുതലിഷ്ടം